ഹലോ ആരായിരുന്നു ആ പറയൂ ആ ഈ സെമെസ്റ്ററിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് അവൻ കുറച്ച് അലമ്പാണ് അവൻ ആദ്യത്തെ സെമെസ്റ്ററിൽ ക്ലാസ്സിൽ സെക്കൻഡ് ആയിരുന്നു നന്നായിട്ട് പഠിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ നമ്മളെ ഈ സെക്കൻഡ് സെമസ്റ്ററിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ പുള്ളി ഇത്തിരി ഉഴപ്പാണ് ചില കൂട്ടുകാരും ബഹളവും അലമ്പും ഒക്കെയായിട്ട് ക്ലാസിൽ ആണെങ്കിലും വർത്തമാനം ഒക്കെയാണ് എപ്പോളും അത് ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് പിടിച്ചു അവനെ പിടിച്ചിട്ട് പിടിച്ച കാര്യമൊക്കെ വീട്ടിൽ പറഞ്ഞിരുന്നോ അവൻ ഇല്ലേ ആ അപ്പോൾ വീട്ടിലൊന്നും പറയാൻ ഞാൻ പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു എന്നാണ് പറഞ്ഞത് ഞാൻ ഇവിടെ അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കിലായി പോയെന്നേ അതാണ് പറ്റിയത് അടുത്ത ദിവസം പി ടി എ മീറ്റിംഗിന് വെച്ചിട്ടുണ്ട് അപ്പോൾ അന്ന് എന്തായാലും വരില്ലേ സാർ ആ ഓക്കെ നമുക്ക് എന്തായാലും കണ്ട് സംസാരിക്കാനാണ് നമ്മുടെ മറ്റേ രണ്ടാമത്തെ കൊച്ചിൻ്റെ കാര്യത്തിനാണെങ്കിലും കൊച്ചൊരു ഉഴപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോളേ ആ അപ്പോൾ ഫസ്റ്റ് സെമ്മിലേക്ക് കയറുന്നതല്ലേ ഉള്ളൂ ഇപ്പം ആ ആ പക്ഷേ ആദ്യത്തെ ഇൻറെർണലിലേ ഇത്തിരി മാർക്ക് കുറവാണ് അത് വീട്ടിൽ പറഞ്ഞില്ലായിരുന്നോ ആ പക്ഷേ നമ്മൾ ഇത്തിരി കൂടെ മാർക്ക് ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ആ കൊച്ച് നന്നായിട്ട് പഠിക്കുന്നുണ്ട് മാർക്ക് ഇത്തിരി കുറവാണ് അപ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് നന്നായിട്ടൊന്ന് പഠിക്കാൻ പറയണേ നമ്മൾ റെമെഡിയൽ ക്ലാസ് ഒക്കെ വയ്ക്കാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ട് ഈ സെം തീരുമ്പോഴത്തേനും നമ്മുടെ ബാക്കി എല്ലാ നോർമൽ ആയിട്ട് റെഗുലർ സ്റ്റഡീസ് തീർന്ന് കഴിയുമ്പോഴത്തേനും നമ്മൾ ഒരു ക്ലാസ് വയ്ക്കുന്നുണ്ട് അപ്പോൾ കൊച്ചിനോട് പറയാൻ പറഞ്ഞാൽ മതി നമ്മൾ വിളിപ്പിച്ചോളാം മാർക്ക് കുറവുള്ള അത്യാവശ്യം പഠിക്കുന്നവരെ ഒന്നുകൂടെ നന്നായിട്ട് ട്രെയിൻ ചെയ്യുന്നുണ്ട് എക്സാമിന് വേണ്ടിയിട്ട് നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി അത് നമുക്ക് എല്ലാവരും കൂടെ പി ടി എ മീറ്റിംഗ് കൂടി കഴിയുമ്പം ഏത് സമയത്താണ് നിങ്ങൾക്ക് വന്ന് കൊണ്ടുപോവാനും സ്യുട്ടബിൾ ആയിട്ടുള്ള ടൈം നോക്കിയിട്ട് നമുക്ക് അത് അറേഞ്ച് ചെയ്യാം കേട്ടോ അല്ല അല്ല അത് നമ്മൾ പിരിച്ച് ഇരുന്ന് പഠിപ്പിക്കുക അല്ലെങ്കിൽ ആ അലമ്പൊക്കെ ആയിട്ട് ഭയങ്കര ബഹളം ആണ് ഇപ്പോൾ അപ്പം അത്യാവശ്യം പഠിക്കുന്നവരെ മൂന്ന് മൂന്ന് കാറ്റഗറി ആയിട്ട് തിരിക്കും എന്നിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പോൾ പഠിക്കുന്ന പിള്ളേർക്ക് നന്നായിട്ട് പഠിപ്പിക്കും അല്ലാത്തവരെ എല്ലാവരെയും നമ്മൾ ഒരേ പോലെ നന്നായിട്ട് പഠിപ്പിച്ച് എല്ലാവർക്കും നല്ല നല്ല മാർക്ക് മേടിക്കുവാണ് നമ്മുടെ ലക്ഷ്യം ആ ഉണ്ട് ഉണ്ട് നമ്മൾ രണ്ടാഴ്ച്ച കൂടുമ്പം എല്ലാ തിങ്കളാഴ്ചയും നമ്മൾ ടെസ്റ്റ് പേപ്പർ ഇടുന്നുണ്ട് ആ അപ്പം അങ്ങനെയാണ് ആ നമ്മൾ ഈ അടുത്ത ദിവസം പി ടി എ മീറ്റിങ്ങിന് വന്ന് കഴിയുമ്പോഴത്തേനും നമ്മൾ ഒരു പുതിയ ഒരു ആപ്പ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി ഇരിക്കുവാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് നിങ്ങൾക്ക് കൊച്ച് വന്നോ ഇല്ലയോ സ്കൂളിൽ തന്നെ ഉണ്ടോ ഓരോ അവറിലെ അറ്റൻഡൻസ് ഒക്കെ അതിൻറെ അകത്ത് വരും അപ്പോൾ നമുക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും ആ അപ്പോൾ എന്തായാലും പി ടി എ മീറ്റിങ്ങിന് വരുമല്ലോ അല്ലേ അപ്പോൾ നമുക്ക് ബാക്കി സംസാരിക്കാം